കോഴിക്കോട് ജില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സാധാരണ ആൾക്കാര് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അതുപോലെ തന്നെ എന്താ പറയുക ഓരോ വ്യവസായങ്ങളുടെ വരവോടെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാറ്റമുണ്ട് ഇപ്പോ എയർപോർട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഓരോ ഉൽപാദനം നിർവഹിക്കുന്ന ഹാൻഡ്ലുമായിക്കോട്ടെ അതേപോലെ തന്നെ കുറേ സാറ്റലൈറ്റ് സിറ്റി അപ്പം ഒരു ഒരു മലേഷ്യൻ സാറ്റലൈറ്റ് സിറ്റി ആണ് ഇപ്പം നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വസ്ത്രങ്ങളുടെയൊക്കെ ബൾക്കായിട്ടുള്ള ഒരു നിർമ്മാണശാലയും അതുപോലെ തന്നെ ഗ്ലാസ് ഉൽപന്നങ്ങളുടെയൊക്കെ നിർമ്മാണശാല അതുപോലെ ഒരുപാട് ഉൽപ്പന്ന ശാലകളും നമ്മുടെ ഒരുപാട് പേർക്ക് ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടു ജോലി കിട്ടാൻ വേണ്ടി സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥ പിന്നെ സാമ്പത്തികത്തിൻ്റെ വികസനം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ജോലിയുണ്ട് അപ്പം അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവ ഇപ്പം വീട് തന്നെ ആയിക്കോട്ടെ ഇപ്പം കുഞ്ഞ് നാല് റൂമ് ഉള്ള എല്ലാവർക്കും അത്യാവശ്യം ലീവിങ് ആയിട്ടുള്ള സ്പേസ് ഉള്ള ഒരു റൂമും കാര്യങ്ങളും വീടുകളും ഒക്കെയാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പം അതുപോലത്തെ ഉള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്